എനിക്ക് ആണെങ്കിൽ ഫുഡ് കഴിക്കുമ്പം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫിലിം ഒക്കെ കണ്ടു കഴിഞ്ഞാലേ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പം നമ്മുടെ അച്ഛന്റെയും അച്ഛമ്മയുടെ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് കഴിക്കല്ലേ യൂട്യൂബിലെ വീഡിയോ ഒന്നും കണ്ട് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്

നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോന്നൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് പൊട്ട ഫുഡ് ആണെങ്കിലും നമുക്ക് ഇറങ്ങിപോവും പക്ഷേ ഇപ്പോൾ ഒരു ആചാരം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിമർശനങ്ങളും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയായിട്ടാണ് യൂട്യൂബിൽ നോക്കി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പവും ഉണ്ടായിട്ട് എനിക്ക് തോന്നിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത്